വിദ്യാഭ്യാസം നമ്മുടെ ദൈനംദിന ജീവിതത്തില് വളരെ മുഖ്യമായൊരു കാര്യമാണ് കാരണം എന്താണെന്നുവച്ചാലിപ്പോള് നമ്മളാണെങ്കില് ഒരു പുറത്തോട്ടിറങ്ങുമ്പോള് ഒരു ഫോം ഫില്ല് ചെയ്യാന് പറഞ്ഞാല് വിദ്യാഭ്യാസം ഇല്ലാതെ ഒരാള്ക്കതിനൊരിക്കലും ഫില്ല് ചെയ്യാന് കഴിയത്തില്ല അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസം എന്നത് ജീവിതത്തിലെ ഒരു ഒഴിച്ചുകൂടാനാവാത്ത ഒരു ഘടകം തന്നെയാണ് അപ്പോള് വിദ്യാഭ്യാസം എന്നത് ഒരു മനുഷ്യന് ആവശ്യമായൊരു കാര്യമാണ് അപ്പോള് വിദ്യാഭ്യാസമില്ലെങ്കിലിപ്പോള് മറ്റൊരു ഭാഷയിലെഴുതിയേക്കുന്ന അഥവാ ഇംഗ്ലീഷിലെഴുതിയേക്കുന്ന ഒരു നോട്ടീസ് വന്നാല് നമ്മളെക്കൊണ്ട് വായിച്ച് മനസിലാക്കാന് കഴിയത്തില്ല അത്പോലെതന്നെ ഇപ്പോള് ബാങ്കിലൊക്കെ ചെന്നാല് ഒരു ഫോം ഫില്ല് ചെയ്യാന് പറഞ്ഞാല് നമ്മളെക്കൊണ്ട് കഴിയത്തില്ല കാരണം നമുക്കിംഗ്ലീഷ് അറിഞ്ഞൂടാ കാരണം നമ്മള് പഠിക്കുന്നില്ല പഠിച്ചിട്ടില്ല വിദ്യാഭ്യാസമില്ല അപ്പോള് വിദ്യാഭ്യാസം ഉള്ളത് ജീവിതത്തിലെ ഒരു വളരെ ഇമ്പോട്ടന്റായിട്ടുള്ളൊരു ഘടകം അപ്പോള് വിദ്യാഭ്യാസം ഇല്ലെങ്കില് ഒരു നല്ലൊരു തൊഴില് കിട്ടാന് ഒട്ടും ചാന്സില്ല കാരണമെന്തെന്ന് വെച്ചാല് വിദ്യാഭ്യാസം ഉണ്ടെങ്കില് ഇപ്പോള് തൊഴില് കിട്ടും ഇനി പുറത്ത്പോയി വല്ല ജോലിയും ചെയ്യാമെന്ന് വച്ചാല് പത്താംക്ലാസ് പാസ്സാവാതെ പാസ്പോര്ട്ട് കിട്ടുകയില്ല അപ്പോഴത്തേക്ക് ആദ്യം ഞാന് അതുകൊണ്ട് തന്നെ അതില്നിന്നുതന്നെ ഇതൊക്കെ മനസിലാക്കാം വിദ്യാഭ്യാസം ഇല്ലെങ്കില് ജീവിതം പോയന്ന് അപ്പോള് വിദ്യാഭ്യാസമെന്നത് ജീവിതത്തിന്റെ മുഖ്യ ഘടകമാണ്